സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് സാമൂഹ്യപാഠം അതുപോലെ ശാസ്ത്ര വിഷയങ്ങൾ അതുപോലെ ഗണിതം ഇത്രയും വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത് ആ വിഷയങ്ങളിലാണ് ഇന്ത്യ ഒട്ടാകെ പഠിപ്പിക്കുന്നത് അദ്ധ്യാപകർ വിദ്യാസമ്പനരാണ് നല്ലവരുമാണ് അവരേ പൊതുവേ കരുതപ്പെടുന്നതും നല്ലവരായിട്ട് തന്നെയാണ് പക്ഷേ പലരും മിനിമം ക്വാളിഫിക്കേഷൻസ് മാത്രം മീറ്റ് ചെയ്യുന്നവരുമുണ്ട് അവരെപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായം പൊതുവേ ഉണ്ട് ആധുനികമായ രീതിയിൽ ആധുനികമായ രീതിയിലൊന്നും അവർ വിഷയങ്ങളേപ്പറ്റി കൂടുതലായി പഠിക്കുന്നില്ല എന്നുള്ള അഭിപ്രായവും ഇന്നത്തേക്കാലത്ത് നാട്ടിലൊക്കെ എല്ലാവരും പരാതിയായി പറയുന്ന കാര്യമാണ് അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പുസ്തകത്തിലേ മാത്രം നോക്കിയോ അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയൊക്കെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്കത് ആസ്വദിക്കാൻ കഴിയാണ്ട് വരുന്നുണ്ട് അവരേ അതിലേക്ക് ചേർത്തു നിർത്തി പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതുവഴി പഠിപ്പിക്കുന്ന രീതിയിലേക്കൊന്നും ടീച്ചേഴ്സ് എത്തുന്നില്ലയെന്നുള്ള പരാതിയുണ്ട് പുസ്തകത്തിലേ ചോദ്യോത്തരങ്ങൾ ചോദ്യോത്തരങ്ങളായിത്തന്നെ പഠിപ്പിക്കുന്ന ആ ശീലമൊക്കെ പലപ്പോഴും കുട്ടികൾക്ക് അരോചകമായി തോന്നുന്നുണ്ട് അവർക്കത് ബോറടിയും അവർക്കതൊരു മടുപ്പുമൊക്കെ ഉണ്ടാക്കുന്നതായിട്ടൊക്കെ എപ്പോഴും കുട്ടികളും അതുപോലെ തന്നെ പേരെൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിലൊക്കെ അവർ പരാതിയായിട്ടൊക്കെ പറയുന്നുണ്ട് കൂടുതൽ വിഷയങ്ങളും കുട്ടികളേ പഠിപ്പിക്കണം ശാസ്ത്രമോ ഗണിതമോ അല്ലെങ്കിൽ കണക്കുകളോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ മാത്രം പഠിപ്പിക്കാതെ അവർക്ക് സാധാരണ ജീവിതത്തിന് എല്ലാ ദിവസത്തേയും ആവശ്യങ്ങൾക്കു വേണ്ട കാര്യങ്ങൾകൂടി അതായത് ഒരു അടുക്കളയിൽ അവരെങ്ങനെ ഒരു ദിവസം അവർക്കു വേണ്ട ഭക്ഷണങ്ങൾ സ്വന്തം ആവശ്യത്തിനെങ്കിലുമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക

അങ്ങനെ ഒരു ഹോം മേയ്ക്കർ എങ്ങനെയാകാം എന്നൊക്കെ പഠിപ്പിക്കുന്നത് വളരെ മികച്ച ഒരു കാര്യമായിരിക്കും ഇന്നത്തെ അദ്ധ്യാപകർക്ക് അതൊരു കരിക്കുലത്തിൻ്റെ ഭാഗമായി വരുന്നില്ലെങ്കിൽപ്പോലും അദ്ധ്യാപകർക്ക് അധികസമയം കണ്ടെത്തി ഈ കാര്യങ്ങളിലേക്കൊക്കെ അവരേ സഹായിക്കാവുന്നതാണ് പ്രത്യേകിച്ച് കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറിന് വീട്ടിലേ അവരുടെ ഒരു വർഷത്തേ സാമ്പത്തികനില എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ശാസ്ത്രവിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ബയോളജിയോ അല്ലെങ്കിൽ കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുന്ന ഒരാൾക്ക് ഒരു അവർ കഴിക്കുന്ന മരുന്ന് അവരുടെ വീട്ടിലുള്ള മുതിർന്നവർ കഴിക്കുന്ന മരുന്നുകളേപ്പറ്റിയൊക്കെ പഠിപ്പിക്കാൻ പറ്റും ആ മരുന്ന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് ആ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നൊക്കെ പഠിപ്പിക്കാൻ പറ്റും പ്രത്യേകിച്ച് കുട്ടികൾക്ക് പനിയോ അല്ലെങ്കിൽ അസുഖങ്ങളോ വരുമ്പോഴൊക്കെ സ്വയം ചികിത്സയൊക്കെ നടത്തി അവരെ ഒരു അപകടത്തിലേക്ക് പോകാതെ ഈ മരുന്നുകൾ കഴിച്ചാൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട് അത് ഡോക്ടറുടെ നിർദ്ദേശ പ്രകാരമേ കഴിക്കാവുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർറിന് സാമൂഹ്യപരമായ എല്ലാ അറിവുകളും കൊടുക്കാം മുതിർന്നവരേ ബഹുമാനിക്കാൻ പഠിപ്പിക്കാൻ മറ്റൊരു ക്ലാസ്സിനു വേണ്ടിയിട്ടോ ഒരു സന്മാർഗ്ഗ പാഠ ക്ലാസ്സിനു വേണ്ടിയിട്ടോ കാത്തിരിക്കാതെ അതേ ടീച്ചറിനുതന്നെ പഠിപ്പിക്കാവുന്നതാണ് പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് ടീച്ചർമാർക്ക് ഇത്തരം ഉത്തരവാദിത്ത്വങ്ങളിൽ മാറി നിൽക്കുന്നതിലും നല്ലത് അവർ കുറച്ചുകൂടി പുസ്തകത്തിനു പുറത്തുള്ള കാര്യങ്ങൾ എന്നാൽ കുട്ടികളുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരുമാണ് നല്ലത് അത്തരം വിദ്യാഭ്യാസം കൊടുക്കുന്ന ടീച്ചേഴ്സിനേ മാത്രമേ പലപ്പോഴൊരു നല്ലവരായി കാണാൻ സാധിക്കുകയുള്ളു ടീച്ചേഴ്സ് നല്ലവരാണോയെന്നു ചോദിക്കുമ്പം വ്യക്തിപരമായി അവരുടെ സ്വഭാവം നല്ലതായിരിക്കും അദ്ധ്യാപകരെന്ന നിലയിൽ അവർ കുട്ടികൾക്ക് നല്ലവരാകുന്നുണ്ടോ എന്നാണ് ഞാനിവിടെ മറുപടി പറയാൻ ശ്രമിച്ചത് താങ്ക് യു